മലയാളത്തിന് ഇന്ത്യയിൽ വലിയ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്തെന്നു വച്ചാൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ മാത്രമാണ് മലയാളം ഉപയോഗിച്ച് വരുന്നത് മറ്റു സംസ്ഥാനങ്ങളിലാകട്ടെ ഹിന്ദിയും ഇംഗ്ലീഷും മറ്റുമാണ് ഉപയോഗിക്കുന്നത് ഹിന്ദിക്കാണ് നമ്മൾ രാഷ്ട്ര ഭാഷായെന്നുള്ള പദവി കൊടുത്തിട്ടുള്ളത് മലയാളം ഒരുപടി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേരള സംസ്ഥാന സർക്കാർ ശ്രേഷ്ഠഭാഷാ പദവി കൊടുത്തിട്ടുള്ളത് എന്നിരുന്നാലും ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങൾ മലയാളം പഠിപ്പിക്കുന്നില്ല പഠിക്കാൻ അവർ നിർബന്ധിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ സാംസ്കാരിക വിനിമയത്തിനുള്ള ആ ഒരു അവസരം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കാൻ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല ഒരിക്കലും ഇന്ത്യയിൽ മലയാളത്തിന് വലിയ പങ്കുണ്ടെന്നു പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടെന്ന് എന്തുകൊണ്ടെന്നു വച്ചാൽ മലയാളം ചെറിയൊരു സംസ്ഥാനത്ത് മാത്രമാണ് ഒതുങ്ങിക്കൂടുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് അത് ചേക്കേറാൻ അവസരം കിട്ടുന്നില്ല അവസരം കൊടുക്കുന്നില്ല അതിനു വേണ്ടി നമുക്കൊരു അവസരം കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ